എൻ്റെ വീടുകളിൽ വീട്ടിൽ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു തിരുമ്മാൻ അലക്കാൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു പിന്നീട് ടെക്നോളജി ടെക്നോളജി വളർന്നു വന്നത് കൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങി വാഷിഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം വഷിംഗ് മെഷീനും ചില സമയങ്ങളിൽ കല്ലും ഉപയോഗിച്ചു കൊണ്ടാണ് ബാലൻസ്ഡ ഉപയോഗം ബാലൻസ്ഡ ചെയ്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ അലക്കാറുള്ളത് വസ്ത്രങ്ങൾ പിന്നെ കാലാവസ്ഥകൾ മാറി വരുന്ന സമയത്ത് കാലാവസ്ഥകൾ മാറുന്നതിന് അനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ ഉണക്കാന് വളരെ ബുദ്ധിമുട്ടായിരിക്കും വാഷിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീടുകളിൽ അലക്കാൻ അലക്കിയത് ഉണക്കുമ്പോൾ മഴക്കാലത്താണെങ്കിൽ വീടിൻ്റെ ഉള്ളുകളെല്ലാം മലുകൾ കെട്ടിക്കൊണ്ടായിരുന്നു ഉണക്കിയിരുന്നത് പക്ഷേ വാഷിംഗ് മെഷീനുകൾ വന്നതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തന്നെ ഉണക്കാനുള്ള ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല മഴ തെറ്റി വന്നാലും മഴക്കാലങ്ങളിൽ ആയാലും വസ്ത്രങ്ങൾ ഉടനെ തന്നെ ഉണങ്ങാറുണ്ട് അത് വലിയൊരു ഉപകാരമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് അതുപോലെ വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ അലക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം പോകുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കിണറുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറുണ്ട് അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതിഎന്ന നിലക്ക് എല്ലാ വീട്ടിലേക്കും കുടിവെള്ളത്തിന്റെ രീതിയിൽ പൈപ്പ് വരുന്നുണ്ട് കുടിവെള്ളം മറ്റു ഉപയോഗങ്ങൾക്ക് ഉയോഗിക്കുന്ന നല്ല വെള്ളം ഒരു ടാപ്പ് മുഖേനെ എല്ലാ വീടുകളിലും ഒരു ടാപ്പ് എന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത ഈ സമയങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ അലക്കാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളമാണ് എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറഞ്ഞ രീതിയിൽ കുറച്ച് വെള്ളമേ ഞങ്ങൾ അലക്കാൻ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് എൻ്റെ ഞാൻ കരുതുന്നത് അതുപോലെ അലക്കുന്ന കല്ലിനേക്കാളും കൂടുതൽ വെള്ളം കുറഞ്ഞ വെള്ളമേ വാഷിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കാറുള്ളൂ ഞങ്ങൾ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അധികവും വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ചില സമയങ്ങളിൽ ഞങ്ങൾ കല്ലും ഉപയോഗിക്കും